നേരിട്ട് ഉപഭോക്താക്കൾക്കോ അല്ലെങ്കിൽ മാർക്കറ്റിലൊക്കെ നമ്മൾ ഈ വിളകൾ എത്തിക്കുന്നതാണെങ്കിൽ അതിലൂടെ നമുക്ക് ഒരുപാട് ലാഭങ്ങൾ ഈ ഇടനിലക്കാരെ ഒഴിവാക്കി നമുക്ക് ഒരുപാട് ലാഭങ്ങൾ ഈ ഒരു ഉൽപാദകർക്ക് ലഭിക്കും എന്നുള്ളത് ലഭിക്കാൻ സഹായിക്കുന്നു എന്നുള്ളത് വളരെ

സംരംഭം എൻ്റെ ശ്രദ്ധയിൽ പെടുകയുണ്ടായി അവർ അവരുടെ അവരുടേതായിട്ടുള്ള പ്രൊഡക്റ്റ് ലോഞ്ച് ചെയ്യുന്ന തിരക്കുന്നതിൽ അതിൽ അവർ അവർ ചെയ്ത് ഒരു വീഡിയോ ഉണ്ടായിരുന്നു അതിൽ അവർ കർഷകരുടെ ഈ ഒരു ദയാനകമായിട്ടുള്ള അവസ്ഥയെക്കുറിച്ച് അവർ പറയുന്നുണ്ട് കാരണം ഈ മാർക്കറ്റുകൾ ഉദാഹരണത്തിന് കുരുമുളക് എടുക്കുക

അതായത്

കാലങ്ങളായിട്ടുള്ള ആ വില മാത്രം അതിൽ നിന്നൊരു കൂടുതൽ അവർക്ക് ആ വിലയിൽ നിന്ന് കൂടുതൽ ലാഭം നേടാനോ തുടങ്ങിയ കാര്യങ്ങളൊന്നും സാധിക്കുന്നില്ല എന്നുള്ളതാണ് ആ സത്യം

മധ്യവർത്തികളല്ലാതെ നേരിട്ട് നമ്മൾ ഉപഭോക്താക്കൾക്ക് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് അവിടെ നിന്നും നേരിട്ടുള്ള ലാഭം നമുക്ക് കരസ്ഥമാക്കാൻ സാധിക്കും അതായത്